ഞങ്ങളുടെ പ്രദേശത്ത് സംസ്ഥാന ഗതാഗത ബസ്സുകളുണ്ട് പിന്നെ ട്രക്കിങ്ങിനായിട്ട് ജീപ്പുകളുണ്ട് ചില സ്ഥലത്തേക്ക് ജീപ്പിനു മാത്രമേ പോകാൻ പറ്റുള്ളൂ ചില വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് അങ്ങോട്ടേക്ക് ജീപ്പുകളുണ്ട് വലിയ റേറ്റൊന്നുമില്ല പിന്നെ ഓട്ടോറിക്ഷകളുണ്ട് പരമ്പരാഗത രീതിയിലുള്ള വാഹനങ്ങളൊന്നുമില്ല അല്ലാതെ അത്യാവശ്യം ഇപ്പം എല്ലാവരും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന രീതിയിലുള്ള വാഹനങ്ങളും സൗകര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ ജീപ്പുകളാണ് കൂടുതൽ ഞങ്ങളെ പ്രദേശത്ത് ഉള്ളത് ട്രക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ജീപ്പുകളാണ് ഉള്ളത് പിന്നെ എല്ലാവർക്കും താങ്ങാൻ പറ്റുന്ന റേറ്റാണ് ഒരുപാട് കൂടിയ റേറ്റുകളൊന്നുമില്ല എല്ലാം ഒരു പോലെ ഒക്കെ തന്നെയാണ് എല്ലാവർക്കും അഫോർഡബിളായിട്ടുള്ളതാണ് പിന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഒരുപാട് ഉണ്ട് അങ്ങോട്ടേക്ക് എല്ലാം നല്ല രീതിയിൽ ഗതാഗത സൗകര്യവും ഉണ്ട് ആർക്കും എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള സ്ഥലങ്ങളൊന്നും അല്ല എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റാം പറ്റുന്ന സ്ഥലങ്ങളും അങ്ങോട്ടുള്ള വാഹന സൗകര്യങ്ങളും ഭക്ഷണ സൗകര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഉള്ള സഞ്ചാരകേന്ദ്രങ്ങൾ തന്നെയാണ്